അല്ല ചേട്ടാ കായംകുളത്ത്ക്ക് ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞിട്ട് ഇനി എപ്പഴാണ് നമ്മള് അവടെത്തുക പോകുന്ന വഴിക്കെനിക്ക് ഹാപ്പി റെസ്റ്റോറൻറ്റിലൊന്ന് കേറെണ്ടീന് ആ വഴിക്ക് പെട്ടെന്നെത്താൻ വല്ല വഴീയുണ്ടോ ഉണ്ടെങ്കില് നമ്മള്ക്ക് അതിലേ പോവായിരുന്നു ഇല്ലേ ഇനിയിപ്പോള് എന്താണു ചെയ്യുക എന്തൊരു ബ്ലോക്കാണ് ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞിപ്പോള് എപ്പഴാണ് അവിടെ എത്തുക സമയം ഇപ്പത്തന്നെ ഒരുപാട് വൈകി ഇനി അവിടെ എത്തണമെങ്കില് ഇനി അരമണിക്കൂറൊക്കെ ഇനീമ്പിടിച്ചൂല്ലേ ഒരുപാട് ടൈം വെയ്റ്റ് ചെയ്തു നില്ക്കേണ്ടിവരൂല്ലേ